ഇപ്പിപ്പോൾ പ്രപഞ്ചത്തിലെ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ ജീവനുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗവേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലല്ലോ നമ്മൾ ഇപ്പം അവിടെ ഉണ്ടെന്ന് ഒക്കെ പറയുന്നതു കേൾക്കുന്ന അല്ലാണ്ട് നമുക്ക് അതിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പം അവർ നമ്മളെ ഭൂമിയിലുള്ള പല ആൾക്കാരും പല ശാസ്ത്രജ്ഞമാരൊക്കെ അവിടേക്കൊക്കെ ഇപ്പോൾ ചന്ദ്രനിൽ തന്നെ ഈ അടുത്താണ് ഒരു റോക്കറ്റ് അവിടെ അവിടെ ഇതാക്കിയത് അപ്പം ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്ന ഒരു ദൗത്യം അവിടെ വിജയ വിജയകരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് പോയിരിക്കുന്നത് അപ്പം അവിടെയൊക്കെ ജീവൻ്റെ തുടിപ്പ് ഉണ്ടോയെന്ന് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർ അവിടെ ഒക്കെ പോയി അവിടെ എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ റിസേർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വെള്ളം ഉണ്ടോയെന്ന് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആണ് നമുക്ക് മനുഷ്യന്മാർക്ക് അവിടെ താമസിക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ റിസേർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടത്തേക്ക് പോയിരിക്കുന്നത് അപ്പം ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത് അപ്പം നമുക്ക് ജീവൻ്റെ തുടിപ്പുണ്ടോ എന്നൊക്കെ നമ്മളിപ്പം അറിയുന്നൊന്നും ഇല്ല വലിയ കാര്യമായിട്ട് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിൽ ചിലപ്പം അവിടെ ഉണ്ടാകാനൊക്കെ സാദ്ധ്യത ഉണ്ട് അപ്പം അതൊക്കെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും